കാലാവസ്ഥ രേഖകൾ താമസം ഭക്ഷണം ഗതാഗതം തുടങ്ങിയവയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വിനോദസഞ്ചാരത്തിനൊരു വെല്ലുവിളി നേരിടുന്ന മേഖല അല്ല എൻറേത് എന്നാൽ വിനോ വിനോദസഞ്ചാരികൾക്ക് വിനോദത്തിനായി നിരവധി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നൊരു മേഖലയാണ് മത സ മതകേന്ദ്രങ്ങളായാലും അതുപോലെ തന്നെ കുന്നുകളായാലും ഒക്കെ ഉള്ളൊരു പ്രകൃതിമനോഹാര്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടപെട്ടുന്നതും അവർക്ക് വേഗത്തിൽ വന്നെത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഗ്രാമം തന്നെയാണ് എൻറേത്